ഞങ്ങളുടേത് ഒരു കൊച്ചു ഗ്രാമമാണ് അവിടെ ജലത്തിന് വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഗ്രാമമാണ് കൂടെ കിണറുകൾ ഉണ്ട് തോടുകളുണ്ട് അരുവികൾ ഉണ്ട് വള്ളത്തിന് വെള്ളവും ഉണ്ട് പിന്നെ കൃഷിയെ കൃഷി ചെയ്യാറുമുണ്ട് പിന്നെ എല്ലാവിധ കൃഷികളും ഉണ്ട് അതിന് അയോജ്യമായ വെള്ളങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് ചില ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളത്തിന് ക്ഷാമമാണ് അവർക്ക് ജനങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചു അവരെ സഹായിക്കാറുമുണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുമുണ്ട് കൃഷി ചെയ്യാനാണെങ്കിലും കുടിവെള്ള ക്ഷാമത്തിനാണെന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവരും മൊത്തം ചേർന്നു അല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കും മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥ അല്ല അത്യാവശ്യം നല്ല വെള്ളവും കൃഷിയും ഭൂമിയും പാടവും ഒക്കെ ഉള്ള ഒരു ഗ്രാമമാണ് ഞങ്ങളുടേത് ഞങ്ങളെ ഗ്രാമത്തിൽ കൃഷിയായിട്ട് മഞ്ഞൾ നെല്ല് തെങ്ങ് കവുങ്ങ് അങ്ങനെ ഒരുവിധപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉണ്ട് കൃഷി വിളവെടുപ്പും കുഴപ്പമില്ലാത്ത വിളവെടുപ്പുമാണ് അപ്പുറം ഗ്രാമങ്ങളിലേക്കൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചു വെള്ളം ഞങ്ങൾ കൊടുക്കാറുണ്ട് വെള്ളമില്ലാത്ത ഗ്രാമങ്ങളിലൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തേക്ക് കൃഷി ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട് അവർക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഞങ്ങൾ സഹകരിച്ചു എല്ലാവരും കൂടി ഒത്തിരുമയോടെ സന്തോഷത്തോടെ ഞങ്ങൾ കൊടുക്കാറുള്ളതാണ് മോശമായിട്ടൊന്നും ഇതുവരെ ആർക്കും അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത് എല്ലാവർക്കും ഓരോ കിണർ ഉണ്ട് പിന്നെ ഇവിടെ കിണർ ഉ തോട് അരുവി തോട് കുളങ്ങൾ അങ്ങനെ എല്ലാ വിധ സാധനങ്ങളും ഇവിടെയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് തോടും അരുവികളൊക്കെ ഉണ്ട് പക്ഷെ അതിലൊന്നും വെള്ളവും കാര്യങ്ങളൊന്നുമില്ല കൃഷി ചെയ്യാനും കൃഷി ചെയ്യാൻ വേണ്ടത് വെള്ളമാണല്ലോ അ വെള്ളമില്ലാത്തത് കൊണ്ട് അവർക്ക് കൃഷി ചെയ്യാനും പറ്റുന്നില്ല അ കൃഷി ചെയ്യാൻ ആവശ്യമായ എല്ലാ സാധനം എപ്പളും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് നല്ലൊരു ഒത്തരുമയോടെ പോകുന്ന ഗ്രാമമാണ് ഞങ്ങളുടേത്